എൻ്റെ പ്രദേശത്തെ അടുത്തുള്ള പ്രശസ്തമായ കോളേജുകളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അവിടെ രണ്ട് കോളേജുകളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് എസ് എൻ കോളേജ് പിന്നെ പറയുവാണെങ്കിൽ ഏറ്റോം ഫേമസായിട്ടുള്ള കോളേജ് ആണ് പഴശ്ശിരാജാ കോളേജ് പിന്നെ ബത്തേരിയിലൊക്കെയാണെങ്കിൽ സെൻറ്റ് മേരീസ് കോളേജ് മാനന്തവാടിയിലൊരുപാട് കോളേജുകളുണ്ട് കോ ഓപ്പറേറ്റീവ് കോളേജുകളൊക്കെ ഉണ്ട് പിന്നെ വേറെ പറയുവാണെങ്കിൽ അവിടെ ഗവൺമെൻറ്റ് കോളേജുകൾ എൻജിനീയറിങ് കോളേജൊക്കെയുണ്ട് പിന്നെ കാൾൻസ് കോളേജ് അങ്ങനെയൊക്കെ കോളേജുകളൊക്കെയുണ്ട് സാധാരണ ഇപ്പോൾ പുൽപ്പള്ളിയിൽ തന്നെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പഴശ്ശിരാജാ കോളേജിനെപ്പറ്റി തന്നെയാണ് പണ്ടുകാലം മുതലേ നല്ല പഠനം പഠനത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരു കോളേജ് ആയിരുന്നു അത് അപ്പോൾ അവിടെ ഇപ്പോൾ എൻ്റെ ചേട്ടൻ പഠിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ ഇപ്പോൾ പഠിത്തം ഒക്കെ കഴിഞ്ഞു ചേട്ടൻ അവിടെ ഹിസ്റ്ററി ആയിരുന്നു ജോയിൻ ചെയ്തത് പിന്നെ മാസ്സ് കമ്മ്യുണിക്കേഷനിൽ പി ജി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചേട്ടായി ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നല്ല രീതിക്ക് എന്താ പറയാ പഠിപ്പിക്കുന്ന ഒരു കോളേജ് ആണ് അത് നല്ലപോലെ പഠിപ്പിക്കുവേം ചെയ്യും അതിനനുസരിച്ച് അവർ നല്ല ഉയരങ്ങളിൽ എത്തിക്കാനൊക്കെ പറ്റിയ ഒരു കോളേജും ആണത് ഇത്തരത്തിലാണ് എനിക്ക് പുൽപ്പള്ളിയിനെയൊക്കെ നമ്മുടെ നാടിനെപ്പറ്റിഎന്നല്ല എൻ്റെ വയനാട് ജില്ലയിലെത്തന്നെ കോളേജുകളെപ്പറ്റി അറിയാവുന്നത്